സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഞാൻ പല വിളകൾക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കവറേജ് തുകയും പ്രീമിയം നിരക്കുകളും എല്ലാം എനിക്ക് അറിയാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഞാൻ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തിപ്പതിനേഴിലെ ഉത്തരവ് പ്രകാരം ഞാനൊരു പോളിസി എടുത്തിരുന്നു അപ്പം കലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിനും നിബന്ധനകൾക്കും വിധേയമായി പ്രീമിയം തുക അടച്ച് പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് അവരുടെ നിരക്കെന്ന് പറയുന്നത് അതനുസരിച്ച് ഞാൻ ചേർന്നു എന്നാലും എനിക്ക് സ്വന്തമായോ പാട്ടത്തിനോ കൃഷിയിറക്കാനോ പിന്നെ കർഷകർക്ക് ഈ പദ്ധതിയിൽ അംഗമായി ചേരുവാനോ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പക്ഷേ അവർ പറയുന്നതെന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു സംഘമായിട്ട് ചേർന്ന് ചെയ്താൽ മാത്രമേ ഈ സംസ്ഥാനവിള ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാളുടെ വസ്തു പാട്ടത്തിനെടുത്ത് അതിൽ സംഘമായി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭമെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്ല്യമായി വീതിച്ചുകൊടുക്കണോ വീതിച്ച് കൊടുക്കാമോ അതോ ഒരു വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്ത വ്യക്തിക്ക് കൂടുതലായിട്ട് എടുക്കാനായിട്ട് കഴിയുമോ കാരണം വസ്തു പാട്ടത്തിന് കൊടുക്കുന്ന വ്യക്തിക്ക് വസ്തുവും കൊടുക്കുന്നു അവരൊപ്പം തന്നെ പണിയും ചെയ്യുന്നുവല്ലോ അതൊരു സംശയമുണ്ട് പിന്നെ വിളകൾ പൂർണ്ണമായി നശിച്ചുപോയാൽ ഈ ഇൻഷുറൻസിൽ നിന്ന് നമ്മൾക്ക് എത്ര ശതമാനം തരുവാനായിട്ട് കഴിയും അതുപോലെത്തന്നെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ ഇതും പ്രായാധിക്യമുള്ളതുമായ വൃക്ഷവിളകളെ ഈ പദ്ധതിയിൽ ചേർത്തിട്ടുണ്ട് പഷേ അത് പ്രകാരം നമ്മൾക്ക് ഉൽപാദനക്ഷമത കുറഞ്ഞുകഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് ഉൽപ്പാദനക്ഷമതയുള്ള വിളകളെ നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുമോ അതിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പാദനഷമത കുറഞ്ഞ വൃക്ഷത്തൈകൾ മുറിച്ച് മാറ്റേണ്ടി വരുമോ പിന്നെ വിളവെടുപ്പ് കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൃഷിനാശം സംഭവിച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ഇറക്കിയ മുടക്കുമുതൽ നിങ്ങൾക്ക് എത്ര ശതമാനം ഞങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും